ഞാൻ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ ഓട്ടം കാര്യങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മള് ഇങ്ങനെ ഇപ്പോൾ സ്പോർട്സിനും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ആ സമയങ്ങളിൽ മാത്രമായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടിരുന്നത് ഇപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഇപ്പോൾ ഹെൽത്തിയായിട്ടും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ ഫുട്ബോള് കാര്യങ്ങളൊക്കെ കളിച്ചു കൊണ്ടിരുന്ന സമയത്ത് നല്ലപോലെ ഓടുക ഒക്കെ ചെയ്യുവായിരുന്നു അതുപോലെ ആ സമയത്ത് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുവായിരുന്നു അതിനു വേണ്ടിട്ട് റണ്ണിങ്ങും കാര്യങ്ങളും ഓട്ടവും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് നല്ല ഫിറ്റ്നസും നല്ല ഹെൽത്തിയായിട്ടും നല്ല എനർജറ്റിക് ആയിട്ട് നടക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു നമ്മള് പതിയെ പതിയെ ആ ഇതൊക്കെ മാറി ഇങ്ങനെ ഫോണ് കാര്യങ്ങളൊക്കെ ആയി ഇങ്ങനെ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറിയ ഇറങ്ങിയ സമയത്ത് നമ്മളെ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഓരോ വർക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും പിന്നെ നല്ലപോലെ സ്പോർട്സില് ആക്ടീവായിരുന്ന സമയങ്ങളിലും കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെ ആ ഒരു സിറ്റുവേഷനും ഇതോക്കെ വെച്ചു നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പത്തേ ഒരു ഇത് നോക്കുമ്പോൾ കാരണം ആ സമയത്ത് നമുക്ക് നല്ല ഫിറ്റ്നസും കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗായിട്ടൊക്കെ ഉള്ള ട്രെയിനിങ്ങും ട്രയലും കാര്യങ്ങളൊക്കെ നടത്താറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടുതൽ കുറച്ചും കൂടി എനർജറ്റിക്കായി നിൽക്കാനും നമ്മുടെ സ്റ്റാമിന കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു